നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് മലയാള ഭാഷ വലിയൊരു പങ്കാണ് വഹിക്കുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നാൽ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തിലും ലക്ഷ്യ ദീപിലും പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ് മലയാളം ഇന്ത്യയിൽ സ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷ കൂടിയാണ് നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ വിദ്യാഭ്യാസം വളരെ ചെറുപ്പത്തിൽ ചെറുപ്പക്കാലത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മലയാള ഭാഷ പകർന്ന് നൽകുന്നു നൽകുന്നുണ്ട് അത് ചുറ്റുപാടുകളിലൂടെ ആയാലും വിദ്യാഭ്യാസ മേഖലകളിലൂടെ ആയാലും അവർക്കത് ലഭിക്കുന്നുണ്ട് അത് സംബന്ധമായി കുട്ടികൾ വളരെ മലയാള ഭാഷയിൽ വളരെയധികം പ്രാവിണ്യരായിത്തീരുന്നു അത് കൂടുതൽ മലയാള ഭാഷയുടെ വളർച്ചയെയും കൂടുതൽ സഹായിക്കും സഹായിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കവി കവികളും എല്ലാവരും മലയാള ഭാഷയ്ക്ക് നൽകിയിരിക്കുന്നത് വളരെ വലിയൊരു പ്രാധാന്യം തന്നെയാണ് എല്ലാ രീതിയിലൂടെയും കുഞ്ഞ് മക്കൾക്ക് അതുപോലെതന്നെ വലിയവർക്കും മലയാള ഭാഷയുടെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കിത്തരുന്ന ത തരുന്ന പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഓരോ പാഠഭാഗങ്ങളും കുട്ടികൾക്ക് പകർന്ന് കൊടുക്കുന്നത്